ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട് വായനാശീലം നന്നായിട്ടുള്ള ഒരാളാണ് അതുപോലെ എൻ്റെ കൈയ്യിലുള്ള പുസ്തകങ്ങളെന്നു പറഞ്ഞാൽ ഓടയിൽ നിന്ന് എന്ന പുസ്തകം പിന്നെ നമ്മുടെ കേശവദേവ് സാറിൻ്റെ ആ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നെ മുഹമ്മദ് ബഷീർ സാറിൻ്റെ മതിലുകൾ എന്ന പുസ്തകവും വായിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു ദേശത്തിൻ്റെ കഥ എസ് കെ പൊറ്റക്കാടിൻ്റെ അതൊക്കെ എൻ്റെ കൈയ്യിലുള്ള കളക്ഷൻസ് ആണ് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങുന്നതെന്നു പറഞ്ഞാൽ കടകളിൽ നിന്ന് തന്നെയാണ് അതായത് ബുക്ക് സ്റ്റോറുകളിൽ പോയിട്ട് അവിടെനിന്ന് മേടിക്കാറാണ് പതിവ് പിന്നെ പരിണാമം എൻ പി നാരായണൻ പിള്ള സാറിൻ്റെ പിന്നെ അതേപോലെ ഏറ്റവും നല്ല അതിമനോഹരമായ ഒരു കൃതിയാണല്ലൊ ഖസാക്കിൻ്റെ ഇതിഹാസം അതൊക്കെ ഞാൻ ഒരുപാട് ഒരുപാട് തവണ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് ഇപ്പോഴും ഞാൻ അതൊക്കെ വായിച്ചു ലൈബ്രറികളിൽ പണ്ടൊക്കെ ചെറുതിൽ ലൈബ്രറികളിലൊക്കെ പോയിട്ട് ബുക്ക് എടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് മേടിക്കാറാണ് പതിവ് മേടിച്ചു ഞാൻ വായിക്കും അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ ഞാൻ ആ പുസ്തകങ്ങൾ കൈമാറും അങ്ങനെയൊക്കെയാണ് മുന്നോട്ടു പോകുന്നത്